ഹലോ ഞാൻ ചെന്നൈയിന്ന് വിളിക്കുന്നതായായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ കോഴിക്കോടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഒരൂ ഒരാഴ്ച താമസിക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ആക്കിത്തരുമല്ലെ നമ്മൾ കുറച്ച് ആൾകാർ വരുന്നുണ്ട് എങ്ങനാണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഫാമിലി അടക്കം ഉണ്ട് അപ്പോൾ അവർക്ക് അവിടെ താമസിക്കാൻ ഉള്ള സൗകര്യം ഒക്കെ നിങ്ങൾ റസ്റ്റോറന്റിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുമോ ഹോംസ്റ്റേ ഉണ്ടല്ലെ ഓക്കേ നമുക്ക് അപ്പോൾ റൂമിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുമോ അതോ നിങ്ങളുടെ ടേബിളിൽ തന്നെ എത്തിച്ച് തരുമല്ലേ നമ്മൾ ഓർഡർ ചെയ്തമതി ഓക്കേ ഓക്കേ ഞങ്ങൾ

സെറ്റ് ആക്കാൻ പറ്റോള്ളൂ അല്ലേ ഓക്കേ ഓക്കേ ഞങ്ങൾ ഒരു മുപ്പത് പേര് അടുത്ത് വരുന്നുണ്ട് കാരണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിസ് മൊത്തം ഉണ്ട് എൻ്റെ കസിൻസ് എല്ലാവരും കൂടിയാണ് വരുന്നത് ഒരു ബസിലാണ് വരുന്നത് നമ്മളെല്ലാരും കൂടെ ബസിലാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു ഒരാ അഞ്ച് ദിവസത്തെ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ അവിടെയുള്ള സ്ഥലങ്ങള്ളൊക്കെ കാണാൻ വേണ്ടിട്ട് വരുന്നതാണ് പിന്നെ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്തെന്ന് തന്നെയാണ് നമുക്ക് ഊണ് കാര്യങ്ങൾ ഊണിൻ്റെ ഒപ്പം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് ഇരുപത്തിരണ്ട് കൂട്ടം കറികൾ അല്ലെ ഓക്കേ ഓക്കേ ഓക്കേ നൂറ്റിയറുപത് രൂപ അല്ലെ ഓക്കേ ഓക്കേ കുഴപ്പമൊന്നുമില്ല പൈസ നമുക്ക് ഒരു വിഷയം അല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവൂലോ അല്ലെ നമ്മൾ അടുത്ത മാസം ഒരു പത്താം തീയതി ആണ് വരുന്നത് അതായത് ഒക്ടോബർ പത്തിന് ആണ് നമ്മൾ വരുന്നത് മോർണിംഗ് നമ്മൾ രാവിലെ ആറ് മണിയാവുമ്പോൾ തന്നെ എത്തും നമ്മൾ ഇവിടുന്ന് ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടുന്ന് വിളിക്കാം ഒൻപതാം തീയതി ഞാൻ വിളിക്കാം നിങ്ങൾ രാവിലത്തേക്ക് ആ മെനു കാർഡ് എനിക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി ഞാന് വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വിളിക്കാം അപ്പോൾ നിങ്ങൾ രാവിലത്തേക്ക് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പത്തെക്കും കഴിക്കാൻ പാകത്തിന് ഒന്ന് സെറ്റ് ആക്കി വെച്ചാൽ മതി

വേണ്ട അറേബ്യൻ ഫുഡ് അങ്ങനത്തെ ഒന്നും വേണ്ട നമുക്ക് സാധാ നോർമൽ ഫുഡ് അത്ര മതി ഓക്കേ അങ്ങനെയാണെങ്കിൽ വിളിക്കാം ഞാൻ അപ്പോൾ നിങ്ങളൊന്ന് സെറ്റ് ആക്കി വെച്ചാൽ മതി കേട്ടോ ഓക്കേ ഓക്കേ